വ്യത്യസ്ത പഠനശൈലികളോ കഴിവുകളോ ഉള്ള വിദ്യാർത്ഥികളെ സ്കൂളുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുതന്നെയാണ് ഇന്നത്തെ വിദ്യാഭ്യാസം മുന്നോട്ടു നീങ്ങുന്നത് കുട്ടികളുടെ പഠന ശൈലി വ്യത്യാസമാണ് ഒരു കുട്ടീനെ പോലെയല്ല മറ്റൊരു കുട്ടിയുടേത് ചിലവര് കണ്ടുപഠിക്കുന്നവരാണ് ചിലവര് കേട്ടു പഠിക്കുന്നവരാണ് ചിലവര് ലോജിക്കലായിട്ട് പ്രായോഗികത ഉപയോഗിച്ചു പഠിക്കുന്നവരാണ് ചെയ്തു പഠിക്കുന്നവരാണ് ഇവരുടെ എല്ലാം രീതിക്ക് അധ്യാപന രീതി മാറേണ്ടതുണ്ട് അതായത് കണ്ടുപഠിക്കുന്നവര് അതായത് വിഷ്വൽ ലേണിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ കണ്ടുപഠിക്കാനുള്ള അവസരം അധ്യാപനത്തിൽ ഉൾപ്പെടണം പിന്നെ കേട്ടു പഠിക്കാൻ ആഗ്രഹിക്കുന്നവരില് കുറേ ഈ വിഷ്വൽ അല്ല ഓഡിയോ ഐ സി റ്റിയുടെ ഉപയോഗം ഇവയൊക്കെ ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കണം പിന്നെ പ്രായോഗിക അല്ലെങ്കില് കുറച്ച് ലോജിക്കൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കില് പ്രവർത്തനത്തിലുടെ പഠിക്കേണ്ട പിള്ളാര് പിള്ളേര് കുറച്ചുംകൂടെയും അവർക്ക് ചെയ്തുപഠിക്കാനുള്ള അവസരം കൊടുക്കണം പ്രവർത്തനത്തിലൂടെ അവരെ അവരെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തണം പിന്നെ ഈ പറയുന്നതു പോലെ അധ്യാപന രീതിയില് കൂടുതൽ ഐ സി റ്റിയുടെ ഉപയോഗം ക്ലാസ് മുറിക്കു പുറത്തുള്ള പഠനം ഇവയെല്ലാം പ്രോത്സാഹിപ്പിക്കണം ഇതു പലതരത്തിലുള്ള പഠിക്കാൻ പലതരത്തിൽ പഠിക്കാൻ കഴിവുള്ള കുട്ടികളെ ഉൾപ്പെടുത്താനും കുട്ടികളെ പഠനത്തിൽ കൂടുതൽ സജ്ജരായിട്ടിരിക്കാനൊക്കെ ഇതു സഹായിക്കും പിന്നെ വരുത്താൻ പറ്റുന്നൊരു മാറ്റം അധ്യാപന രീതിയിലാണ് എല്ലാ കുട്ടികളെയിെ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു വരുത്തുക അതായത് കൂടുതൽ മെത്തേഡ്സ് യൂസെയ്യുക പല തരത്തിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ടീച്ചിങ് എയ്ഡ്സ് ടീച്ചിങ് ടൂൾസ് ഇതൊക്കെ ഉപയോഗപ്പെടുത്തി എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തി പഠിപ്പിക്കുക പിന്നെ കുട്ടികളുടെ കഴിവു പുറത്തിറക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എല്ലാ തരത്തിലുള്ള കഴിവുകള് ഉണ്ടോ ഇല്ലയോന്ന് അവർക്കു തന്നെ മനസ്സിലാകുന്ന തരത്തിൽ കുറേ പ്രവർത്തനങ്ങൾ അവര്ക്കു നൽകാൻ ശ്രമിക്കുക